എല്ലാ ഗ്രാമങ്ങളിലും അതേതായ കുടുംബങ്ങൾ രൂപീകരിച്ച് വരുന്നത് ഓരോ മേളകളും ഓരോ കായിക വിനോദങ്ങളും സങ്കൽപ്പിച്ച് അതിൽ നിന്ന് കുറേ കുട്ടികൾക്ക് കിട്ടുന്ന കഴിവുകൾ മനസ്സിലാക്കി അവരെ അതിൽ പ്രാക്ടീസുകൾ നൽകി അവർക്ക് നല്ല കോച്ചിങ്ങുകൾ കൊടുത്ത് അവരെ അവരുടെ കഴിവുകളെ വികസിപ്പിച്ച് എടുക്കാം